എനിക്ക് ആ മൂന്നാറ് തേക്കടി ആ ഇടുക്കി അവിടെ സ്റ്റേ ചെയ്യണമായിരുന്നു ആ അതെ ഒരു വൺ വീക്ക് പോകാം

മ് ആ ഞങ്ങൾ ഒരു നാല് പേരെ ഉള്ളൂ ആ അതെ ഫാമിലി ആയിട്ട് പോകാം അതെ ഒരാഴ്ച്ച ആ ഇപ്പോൾ മഞ്ഞാണ് കാണാൻ ഉള്ള പറ്റില്ലേ ആ ആ അപ്പോൾ ഹോട്ടലിൽ ഫുഡ് ആ ഓ മ് നോ നോൺ വേണം ആ മ് ആ ഇപ്പോൾ ക്ലൈമറ്റ് കൊള്ളാമല്ലോ അല്ലേ ആ അപ്പോൾ ഈ വൺ ഒരാഴ്ച്ച താമസിക്കാൻ ഉള്ള ഇതോ എന് റൂം മാത്രം

ഒരാൾക്ക് അല്ലാണ്ട് ഒരു ഫാമിലിക്ക് അല്ല ആ

ഏഴ് ദിവസത്തിനാണോ നാലായിരം രൂപ

ആ അത് ഓക്കെ മ് ആ എല്ലാം കൂടി നാലായിരം മ് ആ അത് എക്സ്ട്രാ ചാർജ് ചെയ്യേണ്ടി വരും അല്ലേ ആ അല്ല ഈ അഡീഷണൽ ആയിട്ട് പോകുന്ന സമയത്ത് എന്താ പറയുക വെഹിക്കിൾ ഒക്കെ വണ്ടികളൊക്കെ നിങ്ങൾ ഒക്കെ ഇതാക്കി തരില്ലേ ആ ഓക്കെ ആ മ് ആ ഓക്കെ ഇല്ല ഡൗട്ട് ഒന്നും ഇല്ല ഞാൻ കോൺടാക്ട് ചെയ്യാം കേട്ടോ ഹലോ ആ ഫിക്സ്